ഞാൻ ഫോണിൽ യൂട്യൂബിൽ നോക്കിയിട്ടാണ് പുതുതായിട്ട് ഉണ്ടാകണേ കറികളൊക്കെ കാണാ ഉണ്ടാക്കണകറികളൊക്കെ കാണാറ് അതിലിപ്പോൾ വെണ്ടക്ക തൈ തൈരൊഴിച്ചിട്ടൊരു കറിയാണ് വെണ്ടക്കാ ഞമ്മൾ കുറച്ച് ഒരു ചെറുതായിട്ട് കുറച്ചു നീളത്തിൽ കഷ്ണങ്ങളായി നുറുക്കിയിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവയും കടുകും വറ്റൽമുളകും പിന്നെ പിന്നെ പൊട്ടിച്ചത് മൂത്തു വരുമ്പോൾ ഈ വെണ്ടയ്ക്കയും പച്ചമുളകും അതിലിട്ടിട്ട് നല്ലവണ്ണം വഴറ്റുക വയറ്റിയിട്ട് പിന്നെ അതിലേക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടിയും നുള്ള് മുളക് പൊടി ഇട്ടിട്ട് നല്ലവണ്ണം വയറ്റിയിട്ട് പിന്നെ തൈര് ഒഴിയ്ക്കുക തൈരൊച്ചിട്ട് പിന്നെ കറിവേപ്പില ഇട്ടിട്ട് അത് വേണ് അക്കെ വെന്ത് വന്നിട്ട് നമ്മളത് വാങ്ങി വെയ്ക്കും അതാണ് വെണ്ടക്ക തൈരു കറി അതുപോലെ തന്നെ ചിക്കൻ കറി ഞാൻ പുതിയതായിട്ട് കണ്ടു പിടിച്ചതെന്താ വെച്ചാൽ ചിക്കന് ഒരിത്തിരി മുളകു പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകപ്പൊടിയും എല്ലം ഇട്ടിട്ട് നമ്മൾ ചെറുതായിട്ട് പൊടികളൊക്കെ ഇട്ടു നടന്ന് ചിക്കനിൽ പുരട്ടി ഏണ്ട് നമ്മളൊരു പത്തു മിനിറ്റ് മാറ്റി വെക്കും അതു കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറ്റൽ മുളകും ഉണ കടുകും ഇട്ടിട്ട് നല്ലവണ്ണം മൂപ്പിച്ചിട്ട് അതിലേക്കു ചെറുതായിട്ട് സവാള കൊത്തിയരിഞ്ഞു കൊണ്ടത് വഴറ്റിയിട്ട് തക്കാളി ചെറുതായിട്ട് നുറുക്കി അതും വയറ്റി കൊണ്ട് ഇഞ്ചീ പച്ചമുളകും വെളുത്തുള്ളിയും കരിവേപ്പിൻ്റെ ഇലയും ഒക്കെ ചതച്ച് അതൊക്കെ അതിലിട്ടു വയറ്റി അതു നല്ലവണ്ണം വയന്നു വരുമ്പോൾ അതിലേക്ക് ഞമ്മൾ ഉണക്കമുളക് ഞാൻ നല്ലവണ്ണം ഇങ്ങനെ വറുത്തു കൊണ്ട് മിക്സിയിലിട്ടു കൊണ്ട് ചെറുതായിട്ടൊന്നു ചതച്ചെടുക്കും ചതച്ചെടുത്തിട്ട് അതും കൂടി പിന്നെ മസാല വാട്ടണേൽക്ക് ഇട്ടു കൊണ്ട് നല്ലവണ്ണം വയറ്റിയിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നേ പെരും ജീരകപ്പൊടിയും കറിവേപ്പിൻ്റിലയും ഒക്കെ ഇട്ടിട്ട് നല്ലവണ്ണം വയറ്റിയാണ്ട് അതൊക്കെ നമ്മുടെ മാറ്റി വെച്ച ചിക്കൻ ഇട്ടിട്ട് നല്ലവണ്ണം അതിലിട്ട് വയറ്റിയിട്ട് പിന്നെ അമ്പ അടച്ചു വെച്ചു നട ആ ആവിക്കാണ് വേവിക്കുക വെള്ളം ഒഴിക്കില്ല അപ്പം ആ ആവിക്ക് വേവിച്ചു വേവിച്ചെടുത്തിട്ട് നമ്മൾ ഇങ്ങനേ ഗ്രേവി നല്ലവണ്ണം വലിഞ്ഞ മാതിരി ഗ്രേവി ആക്കിയതു കൊണ്ട് കറി പോലെയല്ലാതെ വയറ്റിയാണ്ട് വരട്ടിയെടുക്കും അതാണ് പൊതുവെ ആയിട്ട് കണ്ടിട്ടുള്ള ചിക്കൻ കറി അതു പോലെ വെണ്ടക്ക വെണ്ടക്ക പൊരിക്കണത് ഞാൻ പൊതുതായിട്ട് കണ്ടതെങ്ങനെയെന്നു വെച്ചാൽ വെണ്ടയ്ക്ക കനം കുറച്ച് ചെറുതാക്കി അരിയുക അരിഞ്ഞിട്ട് പിന്നേ നമ്മൾ മുളകു പൊടിയും മഞ്ഞൾപ്പൊടിയും പെരും ജീരകവും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കരിവേപ്പില ഇതൊക്കെ കൂട്ടിയിട്ട് നല്ലവണ്ണം നമ്മൾ തേച്ചു പിടിപ്പിയ്ക്കുക ചേനമ്മെ എന്നിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് നല്ലവണ്ണം പൊരിച്ചു കോരിയെടുക്കുക അങ്ങനെയാണ് ചേന പൊരിക്കുക